ഇപ്പോൾ ഒരു വർഷത്തിൽ പല കാലാവസ്ഥകളിൽ വളരുന്ന വിളകൾ എന്തൊക്കെയാണെന്ന് വച്ചു കഴിഞ്ഞാൽ നമുക്ക് വാഴക്കൃഷി അത്യാവശ്യം എല്ലാ ടൈമുകളിലും നമുക്ക് വിളവെടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് വളരും നല്ല രീതിയിലത് വളരുകയും ചെയ്യും നമുക്കത് വിളവെടുക്കാനും സാധിക്കുന്നതാണ് കാരണമെന്തെന്ന് വച്ചു കഴിഞ്ഞാൽ അതിന് നല്ല രീതിയിലുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ നമ്മൾ ഇപ്പോൾ വെള്ളം ഏതു നേരവും വേണം എന്നു ഒന്നുമില്ല നമ്മൾക്ക് അതിൻ്റെ ഒരു കണക്കനുസരിച്ച് അതിന് വെള്ളവും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടാവും അപ്പം അത് നമുക്ക് മെയിനായിട്ട് നോക്കിയാൽ മാത്രം മതി പിന്നേയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രദേശത്ത് വേറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാപ്പി കാപ്പി നമുക്ക് വച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കതിനു വലിയ കാര്യങ്ങളൊന്നും കൊടുക്കേണ്ട ഏതാണെന്നു വച്ചാൽ ഒരു വേനൽ സമയത്ത് നമ്മൾ വെള്ളവും കാര്യങ്ങളൊക്കെ അതിന് അടിച്ചു കൊടുക്കുക അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള വെള്ളം കിട്ടിക്കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള കാപ്പിയും കാര്യങ്ങളൊക്കെ അതിന് ഉണ്ടാകുന്നതാണ് അപ്പോൾ നമുക്കതും നമുക്ക് നല്ലൊരു അനുയോജ്യമായിട്ടുള്ളൊരു വിളയാണ് പിന്നെ കുരുമുളക് അതും ഇതേ പോലെതന്നെ നമ്മളതിന് എടയ്ക്കൊന്ന് വളമിട്ട് കൊടുക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിലത് കുരുമുളകും കാര്യങ്ങളക്കെ കിട്ടും ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള വിളകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് നല്ല രീതിയിലിപ്പം കപ്പയൊക്കെ ആണെങ്കിൽ അതിന് എപ്പോഴും വെള്ളവും കാര്യങ്ങളൊന്നും ആവശ്യമില്ല ഒരു വേനൽ കാലമൊക്കെയാണെങ്കിൽ നമുക്ക് അത് ജസ്റ്റ് ചെറുതായിട്ട് വെള്ളം നനച്ചു കൊടുത്തു കഴിഞ്ഞാൽതന്നെ കപ്പയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇതൊക്കെയാണ് മൈനായിട്ടുള്ള വിളകൾ